എനിക്ക് കൂടുതലും പ്രകൃതി പ്രകൃതിയിലെ ചിത്രങ്ങൾ വരയ്ക്കാൻ ആണ് ഇഷ്ടം കാരണം അതിലെ ജീവനുള്ളത് ജീവനൊന്നില്ലാത്തതും ആയിട്ടുള്ള വസ്തുക്കൾ വരയ്ക്കാനും ആണേ കൂടുതൽ താല്പര്യം കാരണം അത് നമ്മൾ മനുഷ്യനെ പ്രകൃതിയുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നു ചെടികളിലോ അല്ലേ മരങ്ങളൊക്കെ വരക്കുമ്പോൾ അതിൽ ജീവൻ വെക്കുന്നത് പോലെ കാണുന്നവർക്ക് മനസ്സിലാകണം മൃഗങ്ങളാണേൽ പോലും നമ്മൾ പ്രകൃതിയെ എത്ര സ്നേഹിക്കുന്നു അത് നമ്മൾ ചിത്രത്തിലൂടെ അല്ലേ കലയിലൂടെ ചിത്രകലയിലൂടെ നമ്മൾ ബാക്കി ഉള്ളവരിലേക്ക് അറിയിക്കണം പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൂടുതൽ വരയ്ക്കാറുള്ളത് പ്രകൃതി ദേവിയാണ് അമ്മയാണ് എന്നൊക്കെ ആണല്ലോ പറയാറുള്ളത് സത്യമാണ് ഓ പ്രകൃതി ഭംഗി ആസ്വദിച്ച് പ്രകൃതിയെ പറ്റി ഒരു ചിത്രം വരക്കീന അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം